വീഡിയോ ഗെയിമുകൾ കേവലം സമയം കൊല്ലികളാണോ എന്ന് ചോദിച്ചാൽ വെറും സമയം കൊല്ലികൾ അല്ല ആളെ കൊല്ലികളും കൂടി ആണെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇതിൻ്റെ അഡിക്ഷൻ വന്നു കഴിഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടാണ് പിള്ളാരെ അതിൽ നിന്ന് റിക്കവർ ചെയ്തെടുക്കാൻ വേണ്ടി നമ്മുടെ പേപ്പറുകളിലൊക്കെ വന്ന ധാരാളം അനുഭവങ്ങളോ അല്ലെങ്കിൽ ഇൻ്റ്ർനെറ്റുകൾ വഴി കാണിക്കുന്ന ധാരാളം അനുഭവങ്ങൾ വളരെ ദൂഷ്യഫലങ്ങൾ ഉണ്ട് കാരണം ഇതിൽ പൈസ പോകുന്നത് അപ്പൻ്റെയും അമ്മയുടെയും പൈസ മോഷ്ടിച്ച് അല്ലെങ്കിൽ അവരുടെ അക്കൗണ്ടിൽ നിന്ന് അവർ അറിയാതെ കാശുകൾ ഇങ്ങോട്ട് മാറ്റി ഗെയിം കളിച്ച് ധാരാളം ലക്ഷകണക്കിന് രൂപ നഷ്ടപ്പെടുത്തിയും കുട്ടികളൊക്കെ ധാരാളം ഉണ്ട് അതിൽ പലരും അവസാന നിമിഷം അവസാനം വേറെ ഒരു നിവൃത്തിയും ഇല്ലാത്തതുകൊണ്ട് അവർ ആത്മഹത്യ ചെയ്യുന്നൊരു സിറ്റുവേഷനും കൂടി ഉണ്ടാവുകയാണ് ചെയ്യുന്നത് അങ്ങനെ സമയം കൊല്ലികൾ എന്ന് പറഞ്ഞാൽ പിള്ളേർ കുട്ടികൾക്ക് പഠിക്കാനുള്ള ആ ഒരു താല്പര്യം ഇതിനോട് കൂടുതൽ ഇൻട്രസ്റ്റ് തോന്നി കഴിഞ്ഞാൽ അവരെല്ലാം മറക്കുന്നു ഒരു മുറിയിൽ കയറി ഇരുന്ന് മുറി അടച്ചിട്ട് ഇതിന് വേണ്ടി മാത്രം സമയം കളയുന്ന ഒത്തിരി അധികം പിള്ളേരുണ്ട് അവരെയൊക്കെ ഓരോ ഓരോ അഡിക്ഷൻ ഈ കള്ളിൻ്റെ മാത്രമല്ല മറ്റ് മയക്ക് മരുന്നിൻ്റെ മാത്രമല്ല അഡിക്ഷൻ ഇത് ഒരു അഡിക്ഷൻ തന്നെയാണ് ഇത് അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ ഇത് വളരെ അധികം ദൂഷ്യഫലങ്ങൾ ഉണ്ടാക്കുന്ന ഒരു അഡിക്ഷനാണ് കാരണം മെൻ്റൽ ഡെവലപ്മെൻ്റ് അല്ല ഇതിലുണ്ടാകുന്നത് ഈ ഒരു കാര്യത്തിനോട് മാത്രം താൽപ്പര്യം തോന്നുന്നു അതിൽ എന്ത് സംഭവിക്കുന്നു എന്ത് നഷ്ടങ്ങളാണ് ഉണ്ടാകുന്നത് എന്നൊന്നും ആരും ചിന്തിക്കുന്നില്ല കാരണം ചിന്തിക്കാനുള്ള ഒരു കഴിവ് ആ പിള്ളേർക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ് വീഡിയോ ഗെയിമുകളുടെ ഗുണഫലങ്ങളെ പറ്റി പറയാൻ പ്രത്യേകിച്ചില്ല എന്തെങ്കിലും പഠനവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും വീഡിയോ ഗെയിമുകള് ബുദ്ധിപരം ബുദ്ധിവികാസം ഉണ്ടാകുന്ന എന്തെങ്കിലും ഒക്കെ ചെയ്താൽ അത് നല്ലതാണ് അങ്ങനെയുള്ള ചില ചില്ലറ ഇതുകളൊക്കെ ഉണ്ട് പക്ഷെ കൂടുതലും ഈ വെടിവെപ്പും ഇപ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ ഒരു കൊച്ചു കുട്ടി എൻ്റെ മകൻ്റെ മകൻ അവന് ഒരു ഈയിടെ ഒരു തോക്കും കൂടെ മേടിച്ചു കൊടുത്തായിരുന്നു ചുമ്മാ ഒരു തമാശക്ക് മേടിച്ചു കൊടുത്തതാണ് പക്ഷെ ഇപ്പം ഈ ഗെയിമും കൂടെ കണ്ടേച്ച് പിന്നെ വെടിവെപ്പാണ് അവസാനം എല്ലാവരേയും വെടിവയ്ക്കും അവൻ്റെ ഗ്രാൻഡ്ഫാദറായ എന്നെകൂടെ അവൻ വെടിവെച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് ചില സമയങ്ങളിൽ കാരണം അവന് ഇപ്പം അതൊരു വളരെ ഇൻട്രെസ്റ്റായി കൊണ്ടിരിക്കുകയാണ് അവൻ മാത്രം അല്ല മറ്റ് പല പിള്ളേരുടെയും കാര്യങ്ങൾ ഇതൊക്കെയാണ് ഈ പണ്ടൊരൂ വീഡിയോ ഗെയിം ഇറങ്ങിയിരുന്നു ബ്ലൂ വെയിൽ ഇപ്പോൾ ഏതായാലും അത് നിരോധിച്ചിരിക്കുകയാണ് കാരണം ആ ഒരു ഇതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്ത പിള്ളേർ ഒത്തിരിയാണ് കാരണം ആ രീതിയിലേക്ക് ഒരു അഡിക്ഷൻ ഉണ്ടാക്കിയെടുക്കുകയാണ് ഇവർ ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിച്ച്ത് അവർ ഒരു പക്ഷെ അത് അല്ല എങ്കിൽപോലും പിള്ളേർ അതിൽ അഡിക്റ്റ് ആവുകയാണ് കാരണം അതിൽ എന്തെങ്കിലും ഒക്കെ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാണോ എന്നൊന്നും പിള്ളേർ ചിന്തിക്കുന്നില്ല അവർ ഇത് കണ്ടു കഴിയുമ്പോൾ ആ ഇതൊന്ന് ഇമിറ്റേറ്റ് ചെയ്തൊന്ന് നോക്കാം ഇപ്പോൾ സപ്പോസ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പേപ്പറിൽ കണ്ട ഒരു കാര്യം ആണ് ഏതോ ഒരു വീഡിയോ ഗെയിം കണ്ടേച്ച് അതുപോലെ അവന് ഈ പറക്കും മനുഷ്യനെ പോലെയുള്ള ഒരാളാണ് അവൻ മോളിൽ കേറി ഇരുന്നേച്ച് താഴോട്ട് പറക്കുന്ന രീതിയിൽ താഴോട്ട് ചാടി എവിടെയൊക്കെയോ ഒടിഞ്ഞെന്ന് അവന് പോലും അറിയത്തില്ല ആശുപത്രിയിൽ കൊണ്ടു പോവേണ്ടിവന്നു അതുപോലെയുള്ള പല സംഭവങ്ങളും ഇതിനോടകം ഒത്തിരി ഒത്തിരി ഉണ്ടായിട്ടുണ്ട് പക്ഷെ പിള്ളേർക്ക് ഇത് മേടിച്ചുകൊടുത്താൽ അവർ അതിന് അഡിക്റ്റ് ആവുമോ എന്നുള്ള കാരണം കാരണം അതിൽ ഈ പിള്ളാർ കുട്ടികൾക്ക് ഇൻട്രസ്റ്റ് തോന്നുന്ന ഒത്തിരി ഒത്തിരി കാര്യങ്ങളുണ്ട് അവർ അറിയാതെ തന്നെ അതിലേക്ക് അങ്ങനെ ഇൻട്രസ്റ്റ്ഡ് ആവുകയാണ് അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ദൂഷ്യഫലങ്ങളേ ഗുണഫലങ്ങളെ പറ്റി പറയുന്നതിനേക്കാൾ എളുപ്പം ഇതിൻ്റെ ദൂഷ്യഫലങ്ങളെപ്പറ്റി മാത്രം പറയുന്നതാണ് ഉള്ളത് കാരണം പിള്ളേർക്ക് പഠിക്കാനുള്ള താൽപ്പര്യം നഷ്ടപ്പെട്ടുപോവുകയാണ് മറ്റേ അഡ്വെഞ്ചറസായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം കാരണം ഇതിലെ കഥാപാത്രങ്ങൾ ഓരോ കേരക്ടേഴ്സും ചെയ്യുന്നതും നല്ല നല്ല വളരെ അഡ്വഞ്ചറസ്സായിട്ടുള്ള കാര്യങ്ങളാണ് അതൊക്കെ എങ്ങനെ ഇമിറ്റേറ്റ് ചെയ്യാം ഏതൊക്കെ രീതിയിൽ അത് ഫോളോ ചെയ്യാം അതിൽ വരുന്ന ദൂഷ്യഫലങ്ങൾ എന്തൊക്കെയാണെന്നെന്നും ഇവർ ചിന്തിക്കുന്നില്ല അവർക്ക് അതിനെ പറ്റി ചിന്തിക്കാനുള്ള ഒരു മാനസികാവസ്ഥ അല്ല കൂടുതൽ ഈ കൊച്ചുകുട്ടികളും കൊച്ചുകുട്ടികൾ മാത്രമല്ല ചില പ്രായമായവരും ഒക്കെ ഇതിലൊക്കെ ഒത്തിരി ഒത്തിരി ആകർഷിക്കപ്പെടുന്നുണ്ട് ബ്ലൂ വെയിലിലൊക്കെ ആണേങ്കിലും പലരും ആത്മഹത്യ ചെയ്യേണ്ടിവന്ന സിറ്റുവേഷനൊക്കെ ഉണ്ടായിട്ടുള്ളതാണ് അപ്പോൾ ഇതൊക്കെ ഗെയിമുകൾ സമയം കൊല്ലികൾ മാത്രമല്ല ആളെല്ലികളും കൂടി ആണെന്നാണ് എനിക്ക് പറയാനുള്ളത്